ഹലോ ഇത് ഞാന് ഫോട്ടോഗ്രാഫറായിരുന്നു ചേട്ടാ ഇതാരാ മറ്റേ നേരത്തെ ഓർഡറ് തന്നായിരുന്നു ഞാൻ മറ്റേ ജൂലൈ ആറാം തിയതി ഒര് കല്ല്യാണത്തിന് നമുക്ക് നമ്മള് കല്ല്യാണം ആയിരുന്നു അപ്പം ഫോട്ടോഗ്രാഫറ് അതിൻ്റെ ബഡ്ജറ്റ് നമ്മളെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് പറയാനായിട്ട് നമുക്ക് ഇപ്പോൾ ഇത് ഡ്രോണ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പം കല്ല്യാണം ആണ്

അപ്പോൾ നമ്മുടെ സേവ് ദ ഡേറ്റ് നമുക്ക് അതിന് മുന്നായിട്ട് ചെയ്യണം അതിനുള്ള കാര്യങ്ങളൊക്കെ എന്നത്തേക്ക് നമുക്ക് നമുക്ക് മൂന്നാം തിയതിയാണ് മനസമ്മതം അപ്പോൾ ഒന്നാം തിയതിയില് നമുക്ക് ചെയ്താലോ നമുക്ക് മറൈൻ ഡ്രൈവിലെ വർക്ക് നോക്കി കൊള്ളാം അപ്പോൾ അതിൻ്റെ തീം ഇത് അപ്പോൾ അല്ല നമുക്ക് അതിൻ്റെ ഇത് തീമൊക്കെ ഒന്ന് അറിയുവായിരുന്നേൽ അല്ല നിങ്ങള് എനിക്ക് അത് ഓക്കെ ആണ് ആ ആ അല്ലാതെ അല്ല നമുക്ക് വല്ല റിസോർട്ടോ അങ്ങനെ ഉള്ള വല്ലതും ഇത് റെസ് വല്ല നല്ല സ്ഥലങ്ങളെല്ലം നോക്കാം ഓക്കെ നമുക്ക് നമുക്ക് മറൈൻ ഡ്രൈവ് തന്നെ നോക്കാം എന്നാൽ സമയം നമുക്ക് ഒര് ഉച്ചയായിട്ടൊരു സമയം വെക്കാം ആഫ്റ്റർ നൂൺ ഉള്ളിൽ ആ ഓക്കെ ആ അത് പിന്നെ നമുക്ക് നമുക്ക് പൈസ ഒര് വിഷയം അല്ലേ ഓക്കേ ആ ആ നിങ്ങള്